ഹലോ

അ ആണല്ലോ പറഞ്ഞോളൂ ആ സോറി മേഡം അത് ഇപ്പം അവൈലബിൾ അല്ലല്ലോ അതൊരു നെക്സ്റ്റ് വീക്ക് ആവുമ്പത്തേക്ക് സെറ്റ് ആവും

ഇപ്പം ഇപ്പം ഇംഗ്ലീഷ് ബുക്ക്സ് കുറച്ച് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു മലയാളത്തിൽ റാം കെയർ ഓഫ് ആനന്ദി ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകൾ ഇരിപ്പുണ്ട് പ്രിയപ്പെട്ട എന്നോട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതൊക്കെ ഇരിപ്പുണ്ട് മാം അല്ല ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്താൽ ചാർജ് ചെയ്യേണ്ട കാര്യം ഇല്ല പിന്നെ ബുക്ക് നിങ്ങളുടെ കയ്യിൽനിന്ന് മിസ്സ് ആയി പോവുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ തിരിച്ച് നിങ്ങൾ പറയുന്ന ഡേറ്റിന് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു കോമ്പൻസേഷൻ ഫീ അടയ്ക്കേണ്ട വരും ആ അല്ലാതെ ലൈബ്രറി ആ മെമ്പർഷിപ്പിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നേരെ വന്നാൽമതി മാം ബുക്ക് തരാം ആ ഡേറ്റ് ഒരു ട്വൽവ്ത്ത് ആവുമ്പത്തേക്കും വന്നോളൂ പന്ത്രണ്ടാം തീയതി ആ ആ അപ്പത്തേനും വരും ആ പന്ത്രണ്ട് ലൈബ്രറി ഫോറ് ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്ക് വരെ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്കിത് എപ്പോഴെങ്കിലും വന്നാൽ മതി ഉം ഇവിടെ എപ്പഴും ആളുണ്ട് ആ ഓക്കെ